തീർച്ചയായും മലയാള ഭാഷയ്ക്ക് അതിൻ്റെതായ പ്രാധനിധ്യമുണ്ട് എന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മാധ്യമങ്ങളിലായാലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലായാലും മലയാളത്തിന് എപ്പോഴും അതിൻ്റേതായ മഹിമ തന്നെയുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മലയാളം പഠിക്കാനും അതുപോലെത്തന്നെ മലയാള മേഖലയിലൂടെ കഴിവ് തെളിയിക്കാനും അതുപോലെത്തന്നെ സാഹിത്യ മേഖലകളിലൊക്കെ ഒരുപാട് ഓപ്ഷൻസും അതുപോലെത്തന്നെ കഴിവുള്ള ആളുകളും ഉണ്ട് എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെതന്നെ മാധ്യമങ്ങളിലായാലും മലയാളത്തോട് തന്നെയാണ് നൂറു ശതമാനം നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളായാലും കേരളക്കരയിലെ മാധ്യമങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തീർച്ചയായും മലയാള ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധിനിധ്യം ഉണ്ട് എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്